ഹലോ ആ പറ

ഹലോ ഹലോ ആ കേൾക്കാമോ ആ കേൾക്കാം കേൾക്കാം ഓക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട് റെഡ് വെല്വെറ്റ് ഉണ്ട് ബട്ടര്സ്കോച്ച് ഏത് വേണമെങ്കിലും ചെയ്ത് തരും വണ് കെ ജിയും ഹാഫ് കെ ജിയും ആണ് വണ് കെ ജി തൗസൻറും ഹാഫ് കെ ജി ഫൈവ് ഹണ്ട്രഡും ആ കസ്റ്റമൈസ് ചെയ്ത് തരും ഫോട്ടോ അയച്ചാൽ മതി വാട്സാപ്പിലോട്ട് ഫോട്ടോ ഏത് രീതിയിലാണ് ചെയ്യണ്ടത് ഒക്കെ അയച്ചാൽ മതിയേ കസ്റ്റമൈസ് ചെയ്ത് തരും ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല അതിന് എക്സ്ട്രാ ക്യാഷ് ഒന്നുമില്ല അതൊക്കെ ഫ്രീ ആണ് അതൊക്കെ ആഡ് ചെയ്ത് തരും

ഓക്കെ ഇവിടെ വന്ന് കളക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഡെലിവെറി ചെയ്യണോ എങ്ങനെയാണ് ഓക്കെ ഓക്കെ പ് നെയിംസ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണോ എഴുതേണ്ട നെയിം അതൊക്കെ ഓക്കെ ഓക്കെ ഓക്കെ വെല്ക്കം